ഇത് മലപ്പുറത്ത് വെജിറ്റബിൾ മാർക്കറ്റ് അല്ലേ എനിക്ക് ചെറിയ ഒരു ഫംഗ്ഷന് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി ആവശ്യം ഉണ്ടായിരുന്നു ക്യാബേജ് അല്ലേ ആ എനിക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ വേണമായിരുന്നു

അതെ ബീട്രൂട്ട് മുരിങ്ങക്ക ക്യാരറ്റ് തക്കാളി വെണ്ടയ്ക്ക പയറ് അങ്ങനെ കുറച്ച് സാധനം ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമായിരുന്നു ഫങ്ഷൻ വരുന്നത് ഞായറാഴ്ച ആയിട്ടാണ് അപ്പോൾ തലേന്ന് ശനിയാഴച്ചയൊക്കെ ആയിട്ട് ഒരു വൈകുന്നേരത്തിലൊക്കെ എത്തിച്ചുതരികയാണെങ്കിൽ സ്ഥലം പാലക്കാട് സ്ഥലം പാലക്കാട് കഴിഞ്ഞിട്ട് വരണം ആ ആ ഓക്കെ ഓക്കെ ആ റേറ്റ് കാര്യങ്ങളൊക്കെ എത്ര വരുന്നത് തക്കാളി ഉള്ളിയൊക്കെ ഒരു കിലോക്ക് എത്ര റേറ്റ് വരും ആ അപ്പോൾ നിങ്ങൾ വീട്ടിൽ എത്തിച്ച് തരുമല്ലോ അല്ലേ ആ ഓക്കെ എന്നാൽ വീട്ടിലേക്ക് എത്തിച്ചുതരുന്നതിൽ നന്ദി ആ ഓക്കെ